മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്നതാണ് കാരണം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ പല തരത്തിലുള്ള കോച്ചിങ് സെൻ്ററുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് മലപ്പുറം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഒക്കെ മലപ്പുറം ജില്ലയ്ക്ക് വലിയൊരു സമ്പത്താണ് പല പ്രധാനപ്പെട്ട നഗരമായ മഞ്ചേരി പെരിന്തൽമണ്ണ പിന്നെ അതേപോലെ തന്നെ മമ്പാട് തുടങ്ങിയ സ്ഥലത്തൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല നല്ല സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയ് സമയമാണ് മഞ്ചേരിയിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് പല കേരള സർക്കാർ ജോലിയിലേക്കുള്ള ഉള്ള പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി പല സ്ഥാപനങ്ങളും ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് എയിസ് സൈലം പിന്നെ അതേപോലെ തന്നെ വൈദ്യശാസ്ത്ര പരമായിട്ടുള്ള പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പലതരത്തിൽ ഇലുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മഞ്ചേരിയിൽ തന്നെ ഉണ്ട് പിന്നെ ഗവണ്മെൻറ് അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഒന്നോ രണ്ടോ ചുരുങ്ങിയതൊരു നഗരത്തിൽ തന്നെയുണ്ട് പെൺകുട്ടികൾക്കായിട്ടുള്ളത് മാത്രമായിട്ടുള്ളത് ആൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ മഞ്ചേരിയിൽ തന്നെ ലഭ്യമാണ് പിന്നെ ഒരു ഓരോ പഞ്ചായത്തിലും ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകൾ പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്തിൽ രണ്ടെണ്ണം വീതം ഇപ്പോൾ ലഭ്യമാണ്